നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ആ സമയത്തൊക്കെ പെൺകുട്ടികൾക്കല്ല ഭിന്നശേഷിക്കാർക്കാണ് കൂടുതൽ സൈക്കിളുകളും ലാപ്ടോപ്പുകളൊക്കെ കിട്ടാറ് എന്നാലിപ്പോൾ പെൺകുട്ടികൾക്കും കിട്ടുന്നുണ്ട് എന്നു വച്ചാൽ അവർക്കൊരു സ്കൂളിലൊക്കെ പഠിക്കണം എന്നൊക്കെ ഒരു പ്രോത്സാഹനമാണല്ലോ അവർക്കിപ്പോൾ പെൺകുട്ടികൾ കൂടുതലും പഠനത്തിൽ നിന്ന് പിന്നോട്ട് വലിയുന്നത് വലിയുന്ന പെൺകുട്ടികൾക്കൊക്കെ ഇതൊക്കെ കിട്ടുന്നെന്നറിഞ്ഞാൽ സ്കൂളിലേക്ക് പോകാനൊരു പ്രോത്സാഹനമാണല്ലോ വച്ചാൽ ഫലപ്രദമൊക്കെ തന്നെയാണ് അവർക്കൊരു ആൺകുട്ടികൾക്ക് മാത്രം പെൺകുട്ടികൾക്കും അതിൻ്റെ ഒരറിവും സൈക്കിളിപ്പം ആൺകുട്ടികളാണ് കൂടുതലും ഉപയോഗിച്ചു കണ്ടുവരുന്നത് എന്നാലും പെൺകുട്ടികൾക്ക് അതിനുള്ളൊരു ധൈര്യവും സൈക്കിളെടുത്ത് പോകുവാനൊക്കെയുള്ള ധൈര്യമൊക്കെ വരും ലാപ്ടോപ്പാണെങ്കിൽ അവർക്ക് കൂടുതലൊരറിവ് ലഭിക്കുമല്ലോ